ഹലോ ഇത് സിഗ്മാ ഹോട്ടലല്ലേ ഇതാരാണ് ആ ഓക്കേ മാനേജര് അപ്പോള് ഞാന് വിളിച്ചതെന്താണെന്നു വെച്ചാല് ഞാന് ഒരു രണ്ടു മണിക്കൂര് മുൻപേ കുറച്ചു ഫുഡ് ഓര്ഡര് ചെയ്തായിരുന്നു കേട്ടോ സംഭവമെന്നു വെച്ചാൽ വിളിച്ചത് ആ ഫുഡ് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല പറഞ്ഞിരുന്നത് എനിക്കാണേ കറക്റ്റ് ഞാന് വിളിച്ചത് ഒരു മണിക്കാണ് അപ്പോൾ ഒരു ഒന്നരയാകുമ്പോൾ വീട്ടിൽ കൊണ്ട് തരാമെന്നാണ് അവർ പറഞ്ഞത് എന്നാല് ഇതുവരെയും എത്തിയിട്ടില്ല സാധനം എത്തിയിട്ടില്ല വീട്ടിൽ അതുപോലെ തന്നെ അതിന്റെ കാരണം എനിക്കറിയണം അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്നു വെച്ചാൽ ഞാന് ഉച്ചക്ക് ഫുഡ് കഴിക്കാന് വേണ്ടി ഓഡര് ചെയ്ത ഫുഡ് ഇതുവരെ എത്തിയില്ല ഇപ്പം കറക്റ്റ് മൂന്നു മണി ആയിട്ടുണ്ട് എന്നാൽ ഇതുവരെ എത്തിയില്ല എനിക്ക് വിശക്കണുണ്ട് ഫുഡ് പെട്ടെന്ന് എത്തിക്കണം അതുപോലെതന്നെ നിങ്ങളുടെ സർവീസിൽ പറഞ്ഞിട്ടുള്ളതെന്നു വെച്ചാൽ ഒരു ഫുഡ് കൊണ്ടു വന്നാൽ മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെയാണ് പറഞ്ഞേക്കണേ അടുത്തുള്ളതാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കില് ദൂരെയാണെങ്കിൽ ഒരു അരമണിക്കൂറെന്നാണ് പറഞ്ഞേക്കണേ എന്നാൽ നിങ്ങളത് തെറ്റിച്ചു അപ്പോൾ നിങ്ങൾ അതിനു വേണ്ട നടപടികള് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള വെച്ചാൽ ഫുഡ് എങ്ങനെയാണ് നല്ല ഫുഡ്ഡാണോ പിന്നെ എല്ലാവരും എവിടെ കട എവിടെയാണ് ഓക്കേ ശരി ശരി അപ്പോൾ ഫുഡ് പെട്ടെന്ന് എത്തിക്കണം ഓക്കേ പെട്ടെന്ന് എത്തിക്ക് ശരി എന്നാൽ